എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുർത്തി ഓൺലൈൻ വഴി ഓഡർ ചെയ്തു പക്ഷേ അതെത്തിയ സമയത്ത് എൻ്റെ സൈസിനൊട്ടും മാച്ചായിരുന്നില്ല ഞാൻ പറഞ്ഞ സൈസൊന്നുമല്ല എനിക്ക് കിട്ടിയത് ഞാൻ വിചാരിച്ച കളറേ ആയിരുന്നില്ല ഞാൻ ഓഡർ ചെയ്ത കളറ് പിങ്കായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ കളറാണ് റെഡ് ഇനി ഈ ഒരാഴ്ച നേരം കൊണ്ട് ഞാൻ എവിടെ പോയിട്ട് എന്ത് വാങ്ങും എന്ന് എനിക്കറിയില്ല ഇത്രയും കാലം ആരൊക്കെ എന്തൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും ഞാനവർക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതാണ് നല്ലതെന്നാണ് പറയാറ് പക്ഷേ ഇനി ഞാനതൊരിക്കലും പറയില്ല കാരണം നമ്മൾ നേരിട്ട് പോയി വാങ്ങുന്ന സമയത്ത് നമ്മൾക്കറിയാൻ പറ്റും അതിൻ്റെ കളറെന്താണ് അതിൻ്റെ സൈസ് എന്താണ് നമുക്കത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും പക്ഷേ ഓൺലൈനാകുന്ന സമയത്ത് അതെങ്ങനെയാണ് വരിക എപ്പോഴാണ് എത്തുക നമ്മൾ വിചാരിച്ച നേരത്തൊന്നും ആവില്ല എത്തുക അത് മാത്രമല്ല അതിൻ്റെ ഡെലിവറി ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കിട്ടുന്നതിനെക്കാളും നാലു ദിവസം മുന്നേയാണ് അതിന് ശേഷം നാല് ആ ഡേറ്റ് കഴിഞ്ഞിട്ട് നാല് ദിവസത്തിന് ശേഷമാണ് എനിക്ക് സാധനം കിട്ടിയത് ഇനിയിപ്പം ഈ ഒരു നേരം കൊണ്ട് ഞാൻ എവിടെ പോയിട്ട് സാധനം വാങ്ങണം എന്നെനിക്ക് അറിയില്ല എൻ്റെ ചേച്ചിയുടെ കല്യാണം ആയത് കൊണ്ട് ഞാനത്യാവശ്യം നല്ലതായിട്ട് നിക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഞാൻ എന്നാൽ എനിക്ക് ഇവിടെ നിന്നുണ്ടായ അനുഭവം വളരെ മോശമായിപ്പോയി ഇനി ഞാനൊരിക്കലും ഓൺലൈനായിട്ട് ഓഡർ ചെയ്യില്ല ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ഇതെൻ്റെ ആദ്യത്തേയും അവസാനത്തേയും എക്സ്പീരിയൻസായിക്കോട്ടെ ഓൺലൈനിൽ വാങ്ങൽ ഞാൻ നിർത്തി കുർത്തി എന്ന് മാത്രമല്ല വേറൊരു സാധനവും ഞാൻ ഇനി ഓൺലൈനിൽ വാങ്ങാനേ ഉദ്ദേശിക്കുന്നില്ല ഇവരോടുള്ള വിശ്വാസം ഓൺലൈനിലുള്ള വിശ്വാസം എനിക്ക് പോയി ഇനി എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ ചെന്ന് നേരിട്ട് ചെന്ന് കണ്ട് വാങ്ങിക്കോളാം അതിനൊരു മാറ്റവുമില്ല ഇത് ഇത്രയും ഇമ്പോർട്ടൻറ്റായോണ്ടാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം എനിക്കത്രയും ഇമ്പോർട്ടൻറ്റാണ് കാലാ കാലമായിട്ട് ഞാനിതിനെപ്പറ്റി ആശിച്ചിരിക്കുകയാണ് അങ്ങനത്തൊരു കാരണമുണ്ടായോൻടാണ് എനിക്കിത്രയും വിഷമവും ഇത്ര ദേഷ്യവും ഇത്ര സങ്കടമൊക്കെ വന്നത് ഇങ്ങനെ ഉണ്ടായ സമയത്ത് ഇനി ഞാൻ ഈ ഒരാഴ്ച്ചക്കിടയിൽ ഞാൻ എവിടെ എങ്കിലും പോയി ഡ്രസ്സ് വാങ്ങിച്ച് കൊണ്ട് വന്നോളാം